പ്രധാനമായും വിദ്യാർഥികളുപയോഗിക്കുന്ന റോഡ് മാർഗ്ഗമാണ് മിക്കവരും സ്കൂളിലെത്തുന്നത് സമയത്തിന് സ്കൂളിലെത്താനുമൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ പല സ്ഥലങ്ങളിലും വാഹന ലഭ്യത വളരെ കുറവാണ് പ്രധാനമായും റോഡിൻ്റെ ശോചനവസ്ഥ ശോചനീയാവസ്ഥയാണിതിന് കാരണം റോഡിൻ്റെ പല ശോചനീയാവസ്ഥ കാരണം യാത്രാ ദുരിതങ്ങളും ക്ളേശങ്ങളൊരുപാട് സ്ഥലങ്ങളിലനുഭവിക്കുന്നുണ്ട് അങ്ങോട്ട് പൊതുഗതാഗതം പോലും റോഡിൻ്റെ ശോചനീയ അവസ്ഥ കാരണം വരുന്നില്ല പക്ഷേ മറ്റ് സ്ഥലങ്ങളില് ഓരോ പ്രദേശമനുസരിച്ചാണിത് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഓരോ പ്രദേശത്തും ഓരോ രീതീയിലാണ് റോഡിൻ്റെ ശോ നല്ല റോഡുള്ളിടത്ത് ആവശ്യം നല്ല രീതിയിലുള്ള ഗതാഗത സംവിധാനങ്ങളുണ്ട് പക്ഷെ മറ്റ് സ്ഥലങ്ങളിലാണെങ്കില് റോഡിൻ്റെ ശോചനീയവസ്ഥയുള്ള സ്ഥലങ്ങളിൽ പൊതുഗതാഗതം പോലും യാത്ര ക്ലേശങ്ങളൊരുപാട് വിദ്യാർഥികള് അനുഭവിക്കുന്നുണ്ട് പിന്നെ ഏത് സ്ഥലത്തേക്കും റോഡുകളുണ്ട് പക്ഷേ റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ് കുട്ടികൾക്കൊക്കെ സമയത്തിന് സ്കൂളിലെത്താനൊക്കെ അതുകൊണ്ട് തന്നെ കഴിയുന്നില്ല അവര് പല കുട്ടി വിദ്യാർഥികളും താമസിച്ച് നേരത്തെ വീട്ടിൽ പോയി താമസിച്ച് വരുന്ന സമ്പ്രദായമാണ്